ഞാൻ പ്രധാനമായിട്ടും എടുക്കുന്ന ചിത്രങ്ങളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇന്ന ചിത്രങ്ങളെന്നൊന്നുമില്ല കൂടുതലും എൻ്റെ കുട്ടികളുടെ ചിത്രങ്ങളാണ് കൂടുതലും അവിടാവുമ്പോൾ നമുക്ക് ഒരു മനുഷ്യൻ്റെ ജനനം മുതലുള്ള കാര്യങ്ങൾ അതായത് ആ ഒരു കുഞ്ഞിൻ്റെ ആദ്യത്തെ ആദ്യ ബാല്യം പിന്നെ മധ്യ ബാല്യം പിന്നെ അവിടുന്ന് അന്തിമ ബാല്യം അതിൽ നിന്നും വീണ്ടും സ്കൂളിൽ പോകുന്നു കൗമാരം യൗവനം അങ്ങനെ മനുഷ്യൻ്റെ ആ ഓരോരോ കാലഘട്ടങ്ങളും നമുക്കൊപ്പിയെടുക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി ഭംഗിയായ നമ്മുടെ വയലുകൾ പുഴകൾ നമുക്ക് ചുറ്റുമുള്ള പൂന്തോട്ടങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ചിത്രങ്ങളെടുക്കാനായിട്ടാണ് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നത് കാരണം ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ളതിൽ നമ്മളൊരു ഭംഗി കണ്ടെത്തിയാൽ മാത്രമേ ഉള്ളു നമുക്ക് വലിയ വലിയ ചിത്രങ്ങളിലേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ ആ ഒരു ആംഗിൾല് നമുക്കെടുക്കാൻ സാധിക്കത്തുള്ളു കാരണം നമ്മൾ ഇപ്പോൾ പോയി നമ്മുടെ വന്യമൃഗങ്ങളുടെ ഫോട്ടോയോ അഡ്വെഞ്ചറായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്നതിനേക്കാളും നമ്മുടെ ചുറ്റുമുള്ള ആ ചുറ്റുമുള്ള സ്ഥലങ്ങളിലെ ആ ഒരു മനോഹാരിത നമ്മുടെ ക്യാമറകളിൽ പകർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം അതെന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ളത് നമുക്കറിയാം നമുക്കതിൻ്റെ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളായാലും നമുക്കൊരു ചെടികളായാലും നാളെ ഇത് ഇത് വളർന്നോണ്ടിരിക്കയാണ് അപ്പോൾ അതിൻ്റെ പ്രാരംഭം മുതൽ അതിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലും നമ്മളൊരു ഫോട്ടോ എടുത്ത് നമ്മളത് സൂക്ഷിക്കുമ്പോൾ അവസാനം അത് നമ്മളിൽ നിന്നും നഷ്ടമായാലും അതൊരു നല്ല ഓർമ്മയായിട്ട് ഒരു സന്തോഷം നൽകുന്ന ഒരു ഓർമയായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കും അതുകാരണം ഇന്ന തരത്തിലുള്ള ചിത്രങ്ങൾ എടുക്കുന്നതിലൊന്നും എനിക്ക് താല്പര്യമില്ല നമ്മുടെ മുമ്പിലെന്താണോ നമുക്കെന്താണോ സന്തോഷം തരുന്നത് ആ ചിത്രങ്ങളെടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്